എനിക്ക് ഈ ഫോട്ടോഗ്രാഫി ഔപചാരികമായി പരിശീലനമൊന്നും ലഭിച്ചിട്ടില്ല പക്ഷെ ഫോട്ടോഗ്രാഫി എടുക്കാൻ എനിക്ക് ഈ താല്പര്യമുണ്ട് ഫോട്ടോഗ്രാഫിയെനിക്ക് വളരെയിഷ്ടമുള്ളൊരു മേഖലയാണ് കൂടെ നല്ല ഫോട്ടോഗ്രാഫറാകാനെങ്ങനെയാണ് എൻ്റെ നൈപുണ്യങ്ങൾ മെച്ചപ്പെടുത്താൻ നോക്കുകയാണെങ്കിൽ ക്യാമറ ഉപയോഗിക്കാൻ പഠിക്കണം ലൈറ്റനിംഗ് ലൈറ്റിങ് അതായത് വെളിച്ചമെങ്ങനെയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് സെറ്റാക്കാമെന്ന് പഠിക്കണം അങ്ങനെ ഉള്ള കാര്യങ്ങളെനിക്ക് ഫോക്കസ് ചെയ്യണം പിന്നെ പൊസിഷൻസ് എൻ്റെ കമ്പോസിഷൻ ഒക്കെ എനിക്ക് പഠിക്കണ്ട ആവശ്യമുണ്ട് അതൊക്കെ പിന്നാരാണ് നിങ്ങളുടെ പ്രേരണ എൻ്റെ പ്രേരണയെന്ന് നോക്കുകയാണെങ്കിൽ എൻ്റെ ചേട്ടായി ഉണ്ട് ചേട്ടായി നന്നായിട്ട് തന്നെ ഫോട്ടോഗ്രാഫി എടുക്കുകയും ചെയ്യും നല്ല നല്ല ഒത്തിരി സമ്മാനങ്ങളെല്ലാം ഫോട്ടോഗ്രാഫി ചെയ്ത് ചേട്ടായ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫി എനിക്ക് എൻറ്റെയൊരു ഹോബിയായിക്കാണാൻ എനിക്ക് വളരെയധികമിഷ്ടമാണ് പിന്നെ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പറയ്യാണെങ്കിൽ നമുക്ക് പലകാര്യങ്ങളുമിന്ന് സമൂഹത്ത് ഫോട്ടോഗ്രാഫി ചെയ്തത് കൊണ്ട് നമുക്ക് എപ്പോഴും ചെയ്യാവുന്നതാണ് അതായത് ഏതൊര് കാര്യങ്ങളും അതിപ്പം ഞാനൊരു സാമൂഹ്യപ്രവർത്തക സ്റ്റുഡൻറ് എന്ന നിലയിൽ എനിക്ക് ഫോട്ടോഗ്രാഫി കൊണ്ട് തന്നെ പല മെസേജസും കമ്മ്യൂണിറ്റീയിലേക്കെത്തിക്കാം അതോണ്ടെന്നെ ഫോട്ടോഗ്രാഫിയെനിക്കൊരു ഹോബിയായും മറ്റും പലകാര്യങ്ങൾളും ടൂളായി നമുക്ക് ഉപയോഗിക്കാം എന്നൊരു കാര്യമാണ് ഫോട്ടോഗ്രാഫി